ഹലോ ഞാനൊരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ എറണാകുളത്താണ് ഉള്ളത് അപ്പോൾ എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് എനിക്ക് പോകാൻ വേണ്ടീട്ടാണ് ഞാൻ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എറണാകുളത്തു നിന്ന് വയനാട്ടിലേക്ക് എത്ര കിലോമീറ്ററുണ്ട് എത്ര കിലോമീറ്റർ എത്ര നേരം കൊണ്ട് എത്ര മണിക്കൂറുകൊണ്ട് എത്താൻ പറ്റും അതുപോലെത്തന്നെ എറണാകുളത്തു നിന്ന് വയനാട്ടിലേക്ക് എത്രയാണ് ക്യാഷ് വരുക അതൊക്കെ അറിയാൻ വേണ്ടീട്ടാണ് ഇപ്പോൾ ഞാൻ വിളിച്ചത് അതുകൂടാതെ എനിക്കിപ്പോൾ പെട്ടെന്ന് വയനാട്ടിലേക്ക് എത്തേണ്ടത് കൊണ്ട് എങ്ങനെയാണ് കാര്യം എങ്ങനെയാണ് പെട്ടെന്ന് എത്താൻ പറ്റുക അതൊക്കെയൊന്നറിയാൻ വേണ്ടീട്ടാണ് വിളിച്ചത് അതുപോലെത്തന്നെ കുറച്ചുനേരം വെയിറ്റ് ചെയ്യണം നിങ്ങളവിടെ എനിക്ക് വയനാട്ടിൽ നിന്നു പിന്നെ എറണാകുളത്തേക്കു തിരിച്ച് വരുകയും വേണം അതുകൊണ്ട് വെയ്റ്റിങ്ങ് ചാർജും ക്യാഷ് നോർമലിയുള്ള ക്യാഷും പിന്നെ എത്ര എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് എറണാകുളത്തുന്ന് വയനാട്ടിലേക്ക് എത്താൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടീട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തത്